എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ എൻ്റെ ആധാർ കാർഡിലെ വിവരങ്ങൾ ഞാൻ കൊടുത്ത സമയത്ത് തെറ്റായതുകൊണ്ട് എനിക്ക് പാൻ കാർഡിന് അപേക്ഷിക്കുന്ന സമയത്ത് എനിക്കത് വളരെയധികം ഞാൻ ബുദ്ധിമുട്ടനുഭവിച്ചിരുന്നു കാരണം ആധാർ കാർഡിലെ ആ ഒരു മിസ് ആ ഒരു തെറ്റു കാരണം എനിക്ക് പാൻ കാർഡ് എടുക്കാൻ വളരെ പാടായിരുന്നു പിന്നെ ഞാൻ ആധാർ കാർഡ് പോയി ശരി ആധാർ കാർഡിലെ അറിയിപ്പുകൾ പോയി ശരിയാക്കി അതിനു ശേഷമാണ് അതെല്ലാം ശരിയാക്കിയതിനു ശേഷമാണ് ഞാൻ

നിങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യുകയും അതു പോലെ തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുകയും അത് ചെയ്യുക ഇല്ലെങ്കിൽ

നിങ്ങൾക്ക് ആ സമയത്ത് വളരെ പ്രശ്നം നേരിടേണ്ടി വരും ആയതിനാൽ നിങ്ങളെന്തു കാര്യം ചെയ്യുമ്പോഴും സൂക്ഷിച്ചും കണ്ടും തന്നെ ചെയ്യുക വളരെയധികം ശ്രദ്ധിച്ചും ചെയ്യുക